പിന്നേ ക്യാമറ കൊണ്ട് എടുക്കുന്ന ചിത്രം എന്നു പറഞ്ഞാൽ പ്രകൃതിരമണീയമായ നമുക്ക് കാണാൻ നമ്മുടെ കണ്ണിന് നമുക്ക് കുളിരണിയിക്കുന്ന പ്രകൃതിയുടെ മനോഹാരിതയുടെ ചിത്രങ്ങൾ ക്യാമറ കൊണ്ടെടുക്കാനാണ് ഇഷ്ടപ്പെടുന്നത് ക്യാമറ കൊണ്ട് നമ്മളെടുക്കുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ പ്രകൃതി പ്രകൃതിയുടെ ഭംഗികൾ എന്താ എന്താ അതുപോലെതന്നെ ഇപ്പം പ്രകൃതിയിലുള്ള ഓരോ നല്ല നല്ല മരങ്ങളും അതുപോലെ പ്രകൃതി നമ്മൾ കാണുന്ന എന്താ പറയുന്നത് നമ്മൾ നമ്മുടെ ഈ പ്രകൃതിയിലുള്ള കാണുന്ന നമ്മുടെ എന്താണ് പക്ഷികളും അതുപോലെ നമ്മൾ മൃഗങ്ങളും മൃഗങ്ങളെന്നു പറഞ്ഞാൽ നമ്മൾ ഇപ്പം ഒരു ഇപ്പോൾ വനത്തിലൊക്കെ പോവുകയാണെങ്കിൽ അവിടെ നല്ല പ്രകൃതിരമണീയമായ കാഴ്ച്ചകളൊക്കെ കാണാൻ ഇഷ്ടംപോലെ ഉണ്ട് ഇപ്പോൾ നമ്മൾ ഈ ക്യാമറ കൊണ്ട് ഇപ്പം നമുക്കേറ്റവും നമുക്കിത് കണ്ട് ആനന്ദിക്കാനായിട്ട് നമുക്കേറ്റവും കൂടുതൽ നമ്മളിഷ്ടപ്പെടുന്നത് പ്രകൃതിയിലുള്ള പ്രകൃതിയോടു ചേർന്ന് നമുക്ക് അനുഭവപ്പെടുന്ന നമുക്കിഷ്ടവുള്ള ഏറ്റവും നല്ല പ്രകൃതിരമണീയതയാണ് എന്നു പറഞ്ഞാൽ നമുക്ക് പ്രകൃതിയുടെ നമുക്ക് ആസ്വദിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പ്രകൃതി ഒരുക്കിയിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട് അപ്പോൾ നമ്മളതെല്ലാം ചിത്രങ്ങളാക്കി വീണ്ടും വീണ്ടും കാണുകയും കാണുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിനൊരു കുളിർമയും നമുക്ക് കാണാനുള്ള നല്ല ഒരു അതാണ് നമുക്കേറ്റവും നല്ല സന്തോഷം തരുന്നൊരു കാര്യം പ്രകൃതിയിൽ നിന്ന് നമുക്കിപ്പം നമ്മളൊരു കാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല ചിത്രശലഭങ്ങളും അതുപോലെ നല്ല ചെറിയ മൃഗങ്ങളും അതുപോലെതന്നെ കാടെന്നൊക്കെ പറയുമ്പോഴത്തേക്കും നല്ല മരങ്ങളൊക്കെ പൂത്തു നിൽക്കുന്നതും നല്ല മരങ്ങൾ തളിരിട്ട് നിൽക്കുന്നതും അതുപോലെ നല്ല നല്ല നല്ല മരങ്ങളും നല്ല എന്താ നല്ല പക്ഷികളും അങ്ങനെയുള്ള നല്ല ചെറിയ ചെറിയ മൃഗങ്ങളുമൊക്കെ പോകുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ പകർത്തി നമ്മൾ നമ്മുടെ നമുക്ക് അതൊക്കെയൊരു സന്തോഷമാണ് നമുക്ക് തരുന്നത് നമ്മുടെ മനസ്സിന് ഒരാനന്ദം നമ്മുടെ നമ്മുടെ ഒരു ശരിക്കും നമ്മളൊരു ടെൻഷനടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പ്രകൃതിയിലിറങ്ങി നടക്കുകയാണെങ്കിൽ നമുക്കൊരു ക്യാമറ ഉണ്ടെങ്കിൽ നമ്മളിപ്പം നോക്കുമ്പം നല്ല ചിത്രശലഭങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അതിൻ്റെ ഫോട്ടോ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളത് വീണ്ടും കാണുകയൊക്കെ ആണെങ്കിൽ നമ്മുടെ മനസ്സിനൊരു കുളിർമയും നമുക്കൊരു സന്തോഷമൊക്കെ കിട്ടും അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേർന്നു ജീവിക്കുകയാണല്ലോ നമ്മുടെ ഒരു സന്തോഷം എന്നു പറയുന്നത് അപ്പം നമ്മൾ പ്രകൃതിയിലുള്ള പ്രകൃതിക്ക് അനുയോജ്യ നമുക്കനിയോജ്യമായ പ്രകൃതിക്ക് അനുയോജ്യമായ ഓരോ നല്ല കാര്യങ്ങൾ നമ്മൾ ഓരോ ഇതൊക്കെ നമ്മുടെ ഫോട്ടോയോ ക്യാമറയിലാക്കി വീണ്ടും വീണ്ടും വീണ്ടും നമ്മളെടുക്കുകയൊക്കെ നമ്മൾക്ക് ടെൻഷനായിട്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കൊരു മനസ്സിനൊരു സുഖവും നമ്മുടെ ശരീരത്തിൻ്റെ ആ ക്ഷീണമൊക്കെ പോകുന്നത് അത് നമുക്ക് ഒക്കെ ഒരു അനുഭവം ഉണ്ടാവും എന്നു പറഞ്ഞാൽ നമ്മൾ ചിത്രങ്ങളൊക്കെ ക്യാമറ കൊണ്ട് നമ്മൾ ചിത്രങ്ങളിതാണ് കൂടുതലും എടുക്കുന്നത് പ്രകൃതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ

എന്താ പറയുന്നത് നമ്മളൊരു പ്രകൃതിയിലെ നമ്മൾ ഇപ്പം പോവുന്ന വഴിക്കാണെങ്കിലും ഒരു നല്ല എവിടെയെങ്കിലും നമ്മൾ നല്ല നല്ല പക്ഷികളും

നല്ല കൃഷികളും പ്രകൃതിയിലുള്ള നല്ല ഈ തേയിലക്കൃഷി അങ്ങനെ അതൊക്കെ നമ്മുടെ ചിത്രങ്ങളാക്കി നമുക്ക് നല്ല ശരിക്കും നമുക്ക് മനസ്സിനൊരു ആനന്ദം ഉണ്ടാവുന്ന രീതിയിൽ ചിത്രങ്ങളൊക്കെ എടുക്കാൻ പറ്റും അതുകൊണ്ട് പ്രകൃതിയോടിണങ്ങി നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആണെങ്കിലും നമ്മൾ പ്രകൃതിയിലുള്ള നമുക്കിഷ്ടംപോലെ കാര്യങ്ങൾ നമുക്ക് പ്രകൃതിയിൽനിന്ന് ഫോട്ടോ എടുത്ത് നമുക്കെന്നാൽ ഓരോ നമുക്കിഷ്ടംപോലെ അങ്ങനെ ഫോട്ടോ എടുക്കാനുള്ളതുണ്ട് അപ്പം പ്രകൃതി ചിത്രങ്ങൾ അതുകൊണ്ടാണത് ആ അങ്ങനെയുള്ള ഫോട്ടോകൾ എടുക്കാനാണ് നമുക്ക് അപ്പോൾ നമ്മൾ ഇപ്പം നല്ലൊരു ചിത്രശലഭങ്ങളൊക്കെ കാണുകയാണെങ്കിൽ അതിങ്ങളുടെ അതിൻ്റെ പക്ഷികൾ ഏറ്റവും നല്ല ഇത് പക്ഷികളാണ് നല്ല പക്ഷികളെയൊക്കെ കാണുമ്പം നമുക്ക് കൂടുതൽ അതുങ്ങൾ ഈ പശുവിൻ്റെ ഒക്കെ ചിത്രം എടുത്ത് നമുക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് പല പല തരത്തിലുള്ള പക്ഷികളും പലതരത്തിലുള്ള ചിത്രശലഭങ്ങളും പലതരത്തിലുള്ള ഒത്തിരി പ്രകൃതിയിലോ അതുപോലെ ഒത്തിരി ഇതുള്ളതുകൊണ്ട് നമുക്ക് പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള ചിത്രങ്ങളും ഒക്കെയാണ് കൂടുതലും എടുക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് ചിത്രങ്ങൾ കൂടുതലും നമ്മൾ ഇതുതന്നെയാണ് എടുക്കുന്നത് എടുക്കാൻ ഇഷ്ടപ്പെടുന്നത്